ആ ഹലോ ആ നല്ല വിശേഷം നല്ല വിശേഷം വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവല്ലേ ആ ആ ആ നമ്മള് വീട് ആ അത് തന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞങ്ങളുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് കോൺട്രാക്ടറിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ അവനാണ് കോൺട്രാക്ട് ആ അവനാണ് കോൺട്രാക്ട് പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആ അപ്പം എന്താന്ന് ചോദിച്ചാല് ആ അതെല്ലാം എടുത്തു ആ അങ്ങനെ പറ്റത്തില്ല ഇപ്പോൾ ഷെഡ്ഡ് കാണിക്കണം അപ്പോൾ അങ്ങനെ ഷെഡ് ഒക്കെ വെച്ച് നമ്മള് വരാന്ത അതെല്ലാം റെഡിയായി പിന്നെ അതെല്ലാം റെഡിയാക്കിക്കൊണ്ട് തറ എല്ലാം ഇട്ടു പിള്ളേര് പോകുന്നതിനു മുന്നേ തറ കല്ലിട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പണി തുടങ്ങി ഇനിയിപ്പം ആ അതിനു ആ ആ അപ്പോൾ ഒരു വർഷത്തിനകം അടുത്ത സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പത്തെന് നമുക്ക് ആ പിന്നെ ഹൗസ് വാർമിങ്ങ് നടത്തണം അപ്പം അതുകൊണ്ട് ധൃതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ആ പിള്ളേരൊക്കെ സുഖവായിട്ടിരിക്കുന്നു പിന്നെ ആ എന്താ ആ അന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം മകളുടെ മൂത്ത മകളുടെ കല്യാണ കാര്യം ഞാൻ പറഞ്ഞില്ലെ അവളുടെ കല്യാണം കഴിഞ്ഞപ്പം അന്ന് അന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിള്ളേര് അപ്പം അത് ഉദേശിച്ചാണ് നമ്മള് ഈ ഹൗസ് വാർമിങ്ങ് ഒക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം പെട്ടെന്ന് പണി തീരണം അപ്പം ഇനിയിപ്പം അടുത്തത് ഇനി നമുക്ക് വീടിനകത്ത് സാധനങ്ങള് ഒക്കെ കിച്ചണിലോട്ട് ഉള്ളത് ടൈല് ആ അങ്ങനെ ആ രണ്ടും ഒണ്ട് രണ്ടും ഒണ്ട് കേട്ടോ അവരുടെ കൂട്ടത്തിൽ ബംഗാളികളും ഉണ്ട് അല്ലാതെ മലയാളികളും ഉണ്ട് അവരാണ് പണിയുന്നത്

ആ പിന്നെ ആ നല്ലതാണ് നമുക്ക് പണിത് ഒരുദിവസം അങ്ങോട്ട് ഇറങ്ങ് കാണാം പണി ഒക്കെ മ്മ് ആ ആ പിള്ളേർ ആ പിള്ളേരൊക്കെ സുഖവായിട്ടിരിക്കുന്നു അവിടെ നിന്ന് ഓരോത്തരും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വേണം ഒക്കെ അവരവിടെനിന്നു പറയും അപ്പോൾ നമ്മുടെ ആ ഓണറ് ആ കോൺട്രാക്ടറോട് പറയും ആ അപ്പച്ചനും അമ്മച്ചിയും സന്തോഷമാണ് അപ്പച്ചന് ഇങ്ങനെ മേലായ്ക ഒക്കെ ഉണ്ട് എന്നാലും വീട് പണി തീരുന്നത് വരെ ഇരിക്കണം ഇരിക്കണമെന്നുള്ള പ്രാർത്ഥനയിലാണ്

ആ അത് തന്നെ ആ ആ ആ ആ പണി സ്ഥലത്താണ് ഞാന് ഉണ്ട് ഉണ്ട് ഇന്ന് പണി ഉണ്ട് മഴയാണ് എന്നാലും പണിക്കാരും പണി ഉണ്ട് നമുക്കൊരു ദിവസം പോലും മാറ്റി വെക്കാൻ പറ്റത്തില്ല ആ ധൃതി പണിയാണ് ഇപ്പം

കറണ്ട് അതെല്ലാം അതെല്ലാം കറണ്ടിന് നമ്മള് കണക്ഷൻ കൊടുക്കുന്ന വീട് കെട്ടി കഴിയുമ്പം തന്നെ വന്നിട്ടല്ലേ തേക്കാൻ പറ്റുകയുള്ളു അപ്പോൾ കണക്ഷനുകള് അങ്ങനത്തൊള്ളതൊക്കെ കൊടുക്കും ആ അവര് എല്ലായിടത്തും ഉള്ള കണക്ഷനുകള് കൊടുക്കുക കൊടുത്തിട്ട് വേണ്ടേ തേക്കാന് ആ അതെല്ലാം കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ് ആ ആ വീടിനടുത്ത് ആയതുകൊണ്ട് അവർക്ക് അവർക്ക് സന്തോഷമാണ് അവരെ നോക്കാനൊരാളായല്ലോ എന്നുള്ളൊരു ഇത് അവർക്കുണ്ട് ഒരേ പോലെ നോക്കാം ആ അതുതന്നെ ആ അതുതന്നെ മ്മ് ഓ നമുക്ക് ഓ അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഈ വീട് പണിയുടെ ഇടയ്ക്ക് എല്ലാം കൂടെ അങ്ങ് കൊണ്ട് പോകും അങ്ങനത്തേന് ആ തിരക്ക് ഈ പിള്ളേര് വിളി വേറെ ഒന്നും പോകാനും എടുക്കാനും ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ടെ ആ എല്ലാത്തിനും നമ്മള് തന്നെ എല്ലാത്തിനും ഓടണ്ടേ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ കൊണ്ടുപോകുവാണ് സമയം ഒന്നിനും ഇല്ല ഭയങ്കര തിരക്കാണ് സുദിച്ചേട്ടനും രണ്ടു പേരും ഓട്ടത്തോട് ഓട്ടമാണ് ഓരോ കാര്യങ്ങൾക്കു വേണ്ടിയെ അവിടെ ഇരുന്നുകൊണ്ട് പിള്ളേര് പറയും ഇന്നത് മേടിച്ചുകൊണ്ട് വാ ഇന്നത് പോ എന്നൊക്കെ ഇന്നത് പോലെ മതി അത് പണി എന്ന് പറയുമ്പം പിന്നെ അങ്ങനെ ചെയ്യണം ആ അതെല്ലാം ആ ആ ആ അവർക്കും അങ്ങനെയാണ് നമ്മള് പറയുന്നത് പോലെ ഒന്നുമല്ല അവര് ന്യൂ ജനറഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മള് പഴയ മോഡലല്ലേ എല്ലാം പറയുന്നത് ആ അതുതന്നെ വിളിച്ചിട്ട് ഇല്ല ഓ വിളിച്ചിട്ടേ ഇല്ല ആ അതുതന്നെ ഓ പിള്ളേരുടെ രീതിയിലാണ് പിള്ളേര് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാനഡയും ദുബായിയും എല്ലാം കൂടെ കൂടിയത് ഉള്ള ഐഡിയ ആണ് എന്നാൽ സമയമില്ല വിളിക്കാം കേട്ടോ വിളിക്കാം ശരി ആ വിളിക്കാം എന്നാൽ ശരി ആ